ഹലോ വിൽട്ടൺ അല്ലേ ഞാനിപ്പോൾ ഒരു ഓർഡറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആ ആ ഓക്കെ ഞാൻ ഞാനേ ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബർഗ്ഗറും സാൻ്റ്വിച്ചും പിന്നെ മന്തിയെല്ലാം ആണ് അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡെസ്സേർട്ട്സ് ആയിട്ട് ഐറ്റംസ് എന്തെങ്കിലുമുണ്ടോ ആ ഓക്കെ മാംഗോ പുഡ്ഡിംഗ് ആ ഓക്കെ മാംഗോ പുഡ്ഡിംഗ് ഐസ് ക്രീം ആ ഓക്കെ അതൊരെണ്ണം പിന്നെ ഡ്രീം കേക്കുണ്ടോ വൺ കെ ജി അല്ലേ ഡ്രീം കേക്ക് രണ്ടെണ്ണം വേണമായിരുന്നു ആ പിന്നെ ആ ഒരു വൈറ്റും പിന്നെ നോർമ്മലി ഡ്രീം കേക്ക് ഒന്ന് പിന്നെ വേറെന്തെങ്കിലുമുണ്ടോ ഓക്കെ ബ്രൗണി വേണമായിരുന്നു അതൊരു ഹാഫ് കെ ജി ബ്രൗണിയും കൂടി നേരത്തത്തെ ഓർഡറിൽ അയച്ചു വിടുമോ ആ ഓക്കെ